നഗരപ്രദേശങ്ങളെ അപേക്ഷിച്ചു നോക്കുമ്പോൾ നമ്മുടെ പ്രദേശം ആരോഗ്യമേഖലയോട് അതായത് ഞാൻ വായനാട്ടിലാണ് അപ്പോൾ ഞങ്ങളുടെ പ്രദേശത്തെ ആരോഗ്യ മേഖലയുടെ നിലവാരം വളരെ കുറവാണ് കാരണം നമുക്ക് മികച്ചരീതിലുള്ള ചികിത്സ സൗകര്യങ്ങള് ലഭിക്കുന്നില്ല ഇപ്പം നമുക്കെന്തെങ്കിലും ഒരു അൽപ്പം വലിയ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിലോ ഒന്നുല്ലെങ്കില് ദൂരെ ഏതെങ്കിലും സ്ഥലത്തൊക്കെയാണ് പോകാൻ പറയുക എന്നിട്ടവര് പറയും അവർ അങ്ങോട്ടേക്ക് റെഫറ് ചെയ്യും അപ്പോൾ പിന്നെ അങ്ങനെ റെഫറ് ചെയ്യുവാണെങ്കിൽ നമുക്കിവിടെ ഹോസ്പിറ്റലിൻ്റെ ആവശ്യം ഇല്ലല്ലോ അതായത് ഇപ്പോൾ ഗവൺമെൻറ്റ് ഹോസ്പിറ്റലുണ്ട് ഞങ്ങൾക്ക് മാനന്തവാടിയിൽ നല്ല ഗവൺമെൻറ്റ് അതായത് വയനാടിൻറ്റെ മെഡിക്കൽ കോളേജായിട്ടാണ് മാനന്തവാടിനെ പറയുന്നത് പക്ഷെ ഇപ്പഴും നമുക്കെന്തെങ്കിലും കുറച്ചു സീരിയസായിട്ടുള്ള എന്തെങ്കിലും അസുഖമാണെങ്കില് അവര് നേരെ നമ്മളെ പിന്നെ കോഴിക്കോടേക്കോ അങ്ങനെ എങ്ങോട്ടേക്കോ ആണ് റെഫറ് ചെയ്യുക പിന്നെ അതുപോലെ എന്താന്നുവച്ചിട്ടുണ്ടെങ്കില് ഇപ്പം മെഡിക്കൽ കോളേജൊക്കെയാണല്ലോ അപ്പോൾ എല്ലാ വിധ സൗകര്യങ്ങളും അവിടെ ഉണ്ടാവണല്ലോ അപ്പോൾ നമ്മള് വേറൊരു സ്ഥലത്തേക്ക് നമ്മള് പോകേണ്ട ഒരാവശ്യം വരുന്നില്ല അപ്പോൾ നമുക്ക് മികച്ച രീതിലുള്ള ആരോഗ്യ പിന്നെ ചികിത്സാ സൗകര്യങ്ങള് നമുക്ക് ലഭിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് പട്ടണ അതായത് മറ്റു പട്ടണത്തിലേക്കൊക്കെ പോകാനുള്ള താൽപ്പര്യം അതുകൊണ്ടാണ് ഇപ്പോൾ കൂടുതൽ ആൾക്കാര് കാണിക്കുന്നത് ഇപ്പം നമുക്കിവിടെ തന്നെ മികച്ച ചികിത്സ കിട്ടുകയാണെങ്കിൽ നമുക്കതിൻ്റെ ആവശ്യം വരുന്നില്ലല്ലോ